കുട്ടിക്കാലത്ത് സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ഒരു നല്ല വിനോദ സാ ശീലമുണ്ടായിരുന്നു കുറേ സ്റ്റാമ്പുകൾ ശേഖരിച്ച് ബുക്കുകളിൽ ഒട്ടിച്ച് വെക്കും അത് മറ്റ് എവിടെ നിന്നു കിട്ടിയാലും സ്റ്റാമ്പുകൾ കൊണ്ടു വന്ന് ബുക്കിനകത്ത് നിരത്തി നിരത്തി ഒട്ടിച്ച് വെക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു കുറേ സ്റ്റാമ്പുകൾ ശേഖരിച്ച് വെക്കാറുമുണ്ടായിരുന്നു അതൊക്കെ കുട്ടിക്കാലത്തുണ്ടായിന്നൊരു ശീലമാണ് അതു കഴിഞ്ഞ് പിന്നെ നമ്മളതൊന്നും ചെയ്യാറില്ല പിന്നെ നാണയങ്ങൾ നാണയങ്ങളാണെങ്കിൽ ഒരു രൂപ ആദ്യമേന്ന് എൻ്റെയൊക്കെ കാശിൻ്റെയൊക്കെ പാ കാലത്ത് നാണയങ്ങളായിരുന്നു അത് പൈസയായി പിന്നെയത് പിന്നേ അണയായി അണയത് പൈസയായി അത് നം വർഷങ്ങളായിട്ട് അത് ഇപ്പോൾ പൈസയായിട്ടാണതുപയോഗിക്കുന്നത് പാ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അത് ഒരു രൂപ ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ അങ്ങനെ പൈസകളായിട്ട് ശേഖരിച്ചു അത് പത്തും ഇരുപത് പൈസ വരെ അലുമിനിയത്തിൻ്റെ പൈസകളായിരുന്നു പിന്നീട് അത് മെറ്റൽ രീതിയിലേക്കായി ആ പൈസ ഇപ്പോൾ ഒരു രു ഇരുപത്തഞ്ചിൻ്റെ പൈസയും അൻപതിൻ്റെ പൈസയും വിപണിയിൽ അത് ഉപയോഗിക്കുന്നില്ല അത് വിനിമയം നടക്കുന്നില്ല ഒരു രൂപയിൽ കുറഞ്ഞുള്ള പൈസകൾ ആരും എടുക്കാറില്ല അപ്പം ആ പൈസകളാണ് കൂടുതലും ഇപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുന്നത് രൂപ ആ പൈസകൾ കൂടി രൂപകളായി രൂപകളാണ് രൂപകളാണ് നമ്മൾ കറൻസികളാക്കിയാണ് ഇപ്പോൾ കൂടുതലും വികസിച്ച് വരുന്നത് നമ്മുടെ പൈസകൾക്ക് മൂല്യം ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസക്കൊന്നും മൂല്യമില്ല അൻപത് പൈസ വരെയുള്ള പൈസകൾക്കൊന്നും മൂല്യമില്ല മൂല്യം കൂടുതലും ഒരു രൂപ വരെ മുതലുള്ള പൈസകൾക്കാണ് ഇത്രയും വർഷങ്ങളായിട്ട് മനുഷ്യർ ഉപയോഗിച്ച് വരുന്നതും ഇപ്പോൾ പൈസകൾ ഒരു കറൻസികളുമാണ്